ആ അതെല്ലോ ആ പറയൂ മേഡം എങ്ങനെയുള്ള റൂം ആണ് വേണ്ടത് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങ് ആണോ ഈയൊരു ഹോട്ടലിലെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ബെസ്റ്റ് റെയ് ബെസ്റ്റ് സെർവീസും അതേപോലെ തന്നെ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കോമണേഴ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിലാണ് നമ്മളിവിടെ റൂംസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള റൂംസ് റൂം ആണ് വേണ്ടത് എത്ര നേരത്തേക്കാണ് രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടാണല്ലേ ഓക്കേ ഇവിടെ ഇപ്പം വി ഐ പി റൂംസ് ഉണ്ട് അതിന് കുറച്ച് ഒരിത്തിരി റേറ്റ് കൂടുതലാണ് പക്ഷേ നമുക്ക് ഫൈവ് തൗസൻഡ് മുതൽ റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല റൂംസ് ആണ് വളരെ നല്ല റൂംസ് ആണ് നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ബാത്ത് അറ്റാച്ച്ട് ആണ് അതുപോലെ തന്നെ നല്ല സർവീസ് ആണ് സ്റ്റാഫ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് ഫുഡ് ഒക്കെ റൂമിൽ തന്നെ ഫുഡ് പറയുകയാണെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ എല്ലാം കൊണ്ടെത്തിക്കുന്നതൊക്കെയാണ് കേട്ടോ പ്രൈസ് ഫൈവ് തൗസൻഡ് ആണ് റേറ്റ് ഭയങ്കര കുറവാണ് മറ്റുള്ള നമ്മുടെ ഈ പ്രദേശത്തേക്കുള്ള ഹോട്ടൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് വളരെ കുറവാണ് അതെ അതെ ഇതേ റേറ്റിൽ തന്നെയായിരിക്കും വേറെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഡീഷണൽ ചാർജ് ആയിട്ടൊന്നും ഉണ്ടാവത്തില്ല പിന്നെ നിങ്ങൾ റൂം ബുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാഡത്തിൻറെ തന്നെ ആധാർ കാർഡും അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡും ഒന്ന് വേണം അത് വേറെ ഒന്നും വേണ്ട ഇത് ഇത് മാത്രം മതി നമ്മൾ വേറെ റൂം റിസർവ് ചെയ്തിടും അതിനുശേഷം നിങ്ങൾ ലൈക് ആ ഓക്കേ ഇവിടെ റൂംസ് അവൈലബിൾ ആണ് ഇരുപത്തഞ്ചിനൊക്കെ കുറച്ച് ആ ഓക്കേ നേരത്തെ പറഞ്ഞത് പോലെ ഇവിടെ എന്തായാലും ഇവിടെ റൂംസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് മൂന്ന് ദിവസത്തേക്കായിരിക്കും അല്ലേ ഇരുപത്തിയേഴ് വരെ ഓക്കേ വെക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഫുൾ എമൗണ്ട് തന്നാൽ മതി പിന്നെ ഞങ്ങളുടെ ഹോട്ടലിനെ പറ്റി കുറച്ച് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യണം നിങ്ങൾക്ക് കൺ നിങ്ങൾക്ക് വന്ന് ഇവിടെ നോക്കിയതിന് ശേഷം മതി എന്നിട്ട് ഞങ്ങ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം ഓക്കെ അപ്പം മാഡത്തിന്റെ ഐഡൻറ്റിറ്റി കാർഡും ആധാർ കാർഡും എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യ് ഈ നമ്പറിലേക്ക് ഇത് ആ മതി മതി മതി ഒന്ന് വാട്സപ്പ് ചെയ്തേക്ക് ഞാനിവിടെ റൂം റിസർവ് ചെയ്തേക്കാം ഓക്കെ താങ്ക് യൂ